ചെടികള് പല തരത്തിലുള്ള ചെടികളുണ്ട് വെള്ളത്തില് വളരുന്ന ചെടികളുണ്ട് അതേപോലെ കുറ്റി ആയിട്ട് വെട്ടി ബുഷ് ചെടിയുണ്ട് പിന്നെ കളർ ചെടികളാണെങ്കിൽ പലതരത്തിലുണ്ട് പിന്നേ മുല്ല റോസ് ഉണ്ട് പനിനീര് പിച്ചകം ചെമ്പകം പിന്നെ പോപ്പി ലില്ലി താമര ആമ്പല് ഓർക്കിഡ് പിന്നേ വാടാർമല്ലി മല്ലിക പിന്നെ ഓണച്ചെടി പൂച്ചെടിയുണ്ട് കുറ്റിമുല്ല ചെമ്പരത്തി തെച്ചി പിന്നെ വള്ളിച്ചെടികള് പറഞ്ഞാല് എന്താ ശങ്ക് പുഷ്പമുണ്ട് പിന്നേ മണി പ്ലാന്റ് ഉണ്ട് ഈശര മുല്ല പിന്നേ വള്ളിമുല്ല